എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് മൃഗങ്ങൾ ഉള്ളത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒറ്റയ്ക്ക് വീട്ടിലാണെങ്കിൽ അവർ അവർ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അവർ നമ്മളെ ചിലപ്പോൾ നമ്മളെ നോക്കിയിരിക്കും ചിലപ്പോൾ നമ്മുടെ മേത്ത് വന്നിങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയുള്ള ഒരു കാര്യമാണത് അപ്പോൾ എന്താ പറയുക അവരിങ്ങനെ കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിക്കളിക്കും പിന്നെ നമ്മുടെ കാലൊക്കെ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെയിരിക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്